എനിക്ക് ചെറുപ്പം തൊട്ട് പിന്നെ ഡ്രോയിങ് കളറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമുക്കറിയാം കൊച്ചിലെ മുതൽ നമുക്ക് ഡ്രോയിങ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് ക്ലാസ്സ് ഉണ്ട് നമുക്കതിൻ്റകത്ത് കാര്യങ്ങൾ കാണിച്ചു തരും പറഞ്ഞുതരും പക്ഷെ എനിക്കെന്താന്ന് അറിയത്തില്ല എൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണോ എന്താന്ന് അറിയത്തില്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനോ അത് വരയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ രീതിയ്ക്ക് അല്ലെങ്കിൽ പുതിയ എന്തേലും ഒരു പടം കണ്ടുകഴിഞ്ഞാൽ അത് വരച്ചു നോക്കാനുള്ളൊരു ടെൻ്റൻസി എനിക്കുണ്ട് കളറിംഗ് കാര്യങ്ങൾ ഒരു എന്താപറയാൻ ഒരു ഒരു പ്രത്യേക ഒരു ഇതാണ് എനിക്ക് പിന്നെ കളറിംഗ് ഡ്രോയിങ് നമുക്ക് ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരാളുടെ പിന്നെ ഒരു രൂപം വരയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇപ്പം ഫോട്ടോ ഫ്രെയിം സെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ കളേഴ്സ് പുതിയ പെയിന്റിംഗ് ടെക്നിക്സ് കാര്യങ്ങളെല്ലാം ഗൂഗിൾ ചെയ്യാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഹോബി എന്നുതന്നെ വേണേൽ പറയാം